നമ്മുടെ വീട്ടു പരിസരത്ത് അല്ലെങ്കിൽ പൂന്തോട്ടത്തിലേക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിന് നമ്മൾ അവർക്ക് രാവിലെ ആകുമ്പഴ് കുറച്ച് അത് അരിമണികൾ ഇട്ടുകൊടുക്കണം പിന്നെ അവർക്ക് വെള്ളം വച്ചു കൊടുക്കണം പിന്നെ എന്തെങ്കിലും പഴ വർഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്ന് അരിഞ്ഞ് വച്ച് കൊടുത്താൽ അതിൻ്റെ സീഡ്സൊക്കെ അവർ കൊത്തി കഴിക്കും അപ്പം ധാന്യവും വെള്ളവും നമ്മൾ എപ്പോഴും അവർക്ക് വച്ചു കൊടുക്കണം വേനൽകാലങ്ങളിൽ അവർക്ക് ശരിക്കും വെള്ളത്തിൻ്റെ കുറവ് കാണും അപ്പം ആ സമയത്ത് നമ്മൾ ചെറിയ പാത്രത്തിൽ തണൽ സ്ഥലങ്ങളിലോട്ട് വെള്ളം വച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കുടിക്കും പിന്നെ പക്ഷികളായാലും അവർ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ആ സമയാവുമ്പോൾ അവർ വരികയും ചെയ്യും കഴിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ വീടും പരിസരത്തും പക്ഷികളെ കൊണ്ട് നിറയ്ക്കാനായിട്ട് കഴിയും